നെയ്ത്തുമായി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ ലക്ഷ്യങ്ങൾ എനിക്കും ഉണ്ട് എനിക്ക് നെയ്ത്തിൽ കുറച്ച് നല്ല രീതിയിൽ അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് നെയ്ത്ത് നെയ്ത്ത് വിദ്യഭ്യാസം എൻ്റെ നാട് വിദ്യാഭ്യാസംകുറവുള്ളവരും സാമ്പത്തികസ്ഥിതി വളരെ മോശമായി മോശപ്പെട്ടവരുമായ ഒത്തിരി ജനങ്ങൾ എൻ്റെ നാട്ടിലുണ്ട് അവർക്ക് ഈ നെയ്ത്ത് പരുപാടി നെയ്ത്ത് നെയ്ത്ത് പരുപാടിക്ക് അവർക്ക് പറഞ്ഞുകൊടുക്കാൻ അവർക്കതിനെ അവർക്കതിനെക്കുറിച്ച് അതിൻ്റെ മെഷിനുകളെല്ലാം വാങ്ങി അവർക്കതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസിലാക്കി അത് അതിന് അത് അതിന് അതിൻപ്രകാരം വരുമാനം ഉണ്ടാക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നെയ്ത്തിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ എനിക്ക് എന്നാൽ നെയ്ത്തിനെക്കുറിച്ചൊരു ഒരു യൂണിറ്റ് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ഈ നെയ് നെയ്ത്ത് ഒരു പത്ത് അമ്പത് പേർക്ക് ഒരു ജോലി ജോലിയും കൊടുത്ത് അവർക്ക് ജോലി സാധ്യത കൊടുത്ത് അവരേയും അവരുടെ സമ്പത്ത് നല്ല നിലയിൽ മെച്ചപ്പെടുത്താനും മെച്ചപ്പെടുത്താനും ഉപയോഗമാകുന്നു എനിക്ക് നെയ്ത്തിൽ നെയ്ത്തിൽ ഒരു യൂണിറ്റ് തന്നെ തുടങ്ങണമെന്ന് താല്പര്യമുണ്ട് നെയ്ത്തിൽ അതിൻ്റെ മിഷീൻ വാങ്ങി അതിന് ഒരു പത്തിരുപത്തഞ്ച് ജോലിക്കാരെയൊക്കെ നിർത്തണമെന്ന് താല്പര്യമുണ്ട് അതിന് അതിന്റെ അതിന്റേതായ ലക്ഷ്യങ്ങൾ ഒരുപാടാണ് പാവപെട്ട ജനങ്ങൾക്ക് ജോലി ജോലിക്ക് ജോലി കൊടു ജോലി സാധ്യതയും അതിൻമൂലം അവർക്ക് അവർക്ക് അതിൻ്റെ അദായം കിട്ടുകയും ചെയ്യുന്നു നെയ്ത്ത് നെയ്ത്ത് എന്നാം നെയ്ത്തുമായി ബന്ധപ്പെട്ട് പല ലക്ഷ്യങ്ങൾ എന്നിലുള്ളിൽ എനിക്ക് ഉണ്ട് എനിക്ക് നേടിയെടുക്കാനുണ്ട് ഒരു എൻ്റെ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഈ ഈ വിദ്യാഭ്യാസം കുറവായവരും സമ്പത്ത് സമ്പത്ത് കുറവായവരുമായ ജനങ്ങൾ ജനങ്ങൾ അതായത് സ്ത്രീകളുണ്ട് സ്ത്രീകളെ വെച്ച് ഒരു ഒന്ന് രണ്ട് യൂണിറ്റ് തുടങ്ങാൻ ഞാൻ താൽപര്യപ്പെടുന്നു ആ ആ അതിന് അതിന് അതിനാവശ്യമായ ഒരു പ്രോജക്റ്റ് ഞാൻ എൻ്റെ തൊട്ടടുത്ത ബാങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എനിക്കെത്രയും പെട്ടന്ന് നെയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘടകങ്ങളും ക്ലിയർ ശരിയാക്കി ഒരു യൂണിറ്റ് തുടങ്ങാൻ ഞാൻ എനിക്ക് ആകുമെന്ന് എനിക്ക് ആ എൻ്റെ ലക്ഷ്യം നിറവേറ്റാനും എനിക്ക് പറ്റുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ നെയ്ത്തിൽ ഒരു നല്ല കാശുണ്ടാക്കാൻ എനിക്ക് പറ്റും